പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവിശ്യമില്ല വന്യ ജീവിയെ സംരക്ഷിക്കാൻ നമുക്കിവിടെ വന്യ ജീവികളായിട്ടുള്ളത് കടുവ പുലി ആന കുരങ്ങ് മാൻ മയിൽ പന്നി ഇതൊക്കെയാണ് നമ്മുടെ വന്യജീവികൾ പിന്നെ വന്യജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല പക്ഷെ വന്യജീവികൾ പുറത്തോട്ടിറങ്ങുന്നുണ്ട് നമ്മൾ ഞങ്ങൾ സംരക്ഷിക്കേണ്ട നമ്മൾ സംരക്ഷിക്കേണ്ട അവശ്യമൊന്നുമില്ല വനങ്ങളുണ്ട് ഇപ്പം പിന്നെ അവർ നമ്മളെ ഇറങ്ങി ബുദ്ധിമുട്ടിക്കാതിരു ന്നാൽ നോക്കിയാൽ മതി കാരണം വന്യജീവികളെക്കൊണ്ട് സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ട് കുരങ്ങ് കാരണവും പന്നി കാരണവും സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ട് കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്കിറങ്ങി അവർ ചെയ്യുന്ന പേക്കൂത്തുകളുണ്ടല്ലോ ഏഹ് സാധാരണ കർഷകനെ സംബന്ധിച്ചെടത്തോളം ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് അയാളൊരു സാധനം ഇറക്കിയാൽ പന്നി നശിപ്പിച്ച് അതെന്തോരം വിളകൾ പോകും അതുകൊണ്ട് അവരെയൊരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ നമ്മളങ്ങോട്ട് ചെന്ന് കയറുന്നില്ല അവരിങ്ങോട്ട് വന്ന് നശിപ്പിക്കുന്നതേ ഉള്ളൂ